ഞങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളും അടുക്കള സാമഗ്രികളും പാചകത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ചു പാത്രങ്ങളെപ്പറ്റി പറയാം അതിൽ ഒന്ന് വരുന്നത് മൺകലമാണ് പിന്നെ സ്റ്റീൽ പാത്രം മൺപാത്രം കല്ലിനെ കൊണ്ടുണ്ടാക്കിയ പാത്രം കുക്കറ് ചീനച്ചട്ടി പിന്നെ ഒട്ടി പിടിക്കാത്ത നോൺസ്റ്റിക്ക് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുപ്പികൾ ചെറുതും വലുതും തരത്തിലുള്ള പലതരം പാത്രങ്ങൾ അതേപോലെ തന്നെ പൊട്ടുന്ന വലിയ തരത്തിലുള്ള പളുങ്ക് കുപ്പികൾ സ്പൂണുകൾ ഇനി ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതെന്നു കൂടി പരിചയപ്പെടാം മൺകലം മൺകലം ചോറ് വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചോറ് എന്ന് വെച്ചാൽ അലൂമിനിയം പാത്രത്തിൽ വെച്ചാൽ അതിലെ ചില ഘടകങ്ങൾ അർബുദം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും മൺകലങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രത്തിലാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നത് അതിൽ അത് കുറച്ചു വലിപ്പമുള്ള പാത്രമാണ് ഞങ്ങളെടുക്കാറ് അതിലാണ് വെള്ളം തിളപ്പിക്കുക പിന്നെ വരുന്നത് മൺപാത്രം മൺപാത്രം ഞങ്ങൾ കറി വെയ്ക്കാനും മറ്റും മൺപാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കൽപാത്രങ്ങൾ കൽപാത്രങ്ങളെന്ന് വച്ചാൽ കറിയും മറ്റും വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അതിന് കല്ല്മരി എന്നൊരു പേരും കൂടി ഉണ്ട് പിന്നെ ഉള്ളത് കുക്കറാണ് നമ്മൾ അത്യാവശ്യം കറിയും മറ്റും വെക്കുന്നത് കുക്കറിലാണ് അത് ഒന്ന് കൂകിച്ചിട്ടും മറ്റും വേവ് പാകമാക്കി എടുത്തിട്ട് കുക്കറിൽ വെക്കാറുണ്ട് പിന്നെ വരുന്നത് ചീനച്ചട്ടിയാണ് ചീനച്ചട്ടിയിൽ കറി വെക്കാറുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ കാണപ്പടുന്ന തോരനും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ചീനച്ചട്ടിയിലാണ് പിന്നെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിലുള്ള നോൺസ്റ്റിക്ക് പാത്രങ്ങൾ അതിൽ നമ്മൾ എന്താ പറയുക വെള്ളയപ്പം പോലെയുള്ള ഭക്ഷണ സാധനങ്ങളോ പിന്നെ തോരൻ പോലെയുള്ളതൊക്കെ നമ്മൾ അതിലും വെക്കാറുണ്ട് പിന്നെ വരുന്നത് ഗ്ലാസ്സുകളാണ് നമ്മൾ വെള്ളം കുടിക്കാനും മറ്റും സ്റ്റീൽ ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസുകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ പൊടികളും മറ്റും കറിപ്പൊടികൾ പൗഡറുകളും അതിൻ്റെ കൂടെ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാനുള്ള വലുതും ചെറുതുമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ പൊട്ടുന്ന പാത്രങ്ങൾ എന്നു വെച്ചാൽ ഉപ്പിലിട്ട് വെക്കാനും മറ്റും നാരങ്ങാ നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപ്പിലിട്ട് വെക്കാൻ പൊട്ടുന്ന തരത്തിലുള്ള പാത്രങ്ങൾ കുപ്പികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ കൂടെ സ്പൂണുകൾ പലതരത്തിലുള്ള സ്റ്റീലും അങ്ങനെയുള്ള സ്പൂണുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ റാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകീട്ട് കമഴ്ത്തി വെക്കാൻ വേണ്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചട്ടുകം തവി അതുപോലെയുള്ള ഉപകരണങ്ങളും നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്